മൃഗർ വളർത്തലുമുണ്ട് എന്ന് പറഞ്ഞാൽ പശു ആട് ഈ കോഴി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളർത്തുന്നൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഐശ്വര്യം നൽകുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് കൃഷിക്കും ഭക്ഷ്യ സുരക്ഷക്കും ആവശ്യമായ പിന്നെ വളങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് തരും അതിനു വരുന്ന കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യ സുരക്ഷ സംവിധാനങ്ങൾ നമ്മളതിൻ്റെ തീറ്റിയായിട്ട് പശുവിനൊക്കെ കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ മാംസം പ പശുവിൻ്റെ പിന്നെ പാൽ ഉൽപാദനം മറ്റും ഉൽപ്പന്നങ്ങൾ മൃഗ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ ആരോഗ്യത്തിനും ജീവിതത്തിനും വേണ്ടി നമുക്ക് കിട്ടും കൂടാതെ നമുക്ക് ഓരോ ഓരോ ആവശ്യത്തിനും ഇവരെ സഹായിക്കുന്ന ആ ഒരു പ്രവണതയിലോട്ട് മനുഷ്യൻ കടന്നിട്ടുണ്ട് എത്ര ഇവിടെയൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ആളുകൾ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെയാണ് പശുക്കളെയൊക്കെ വളർത്തുന്നത് പത്തും ഇരുപതും പശു അൻപതും പശു ഒക്കെ ഉള്ള ഫാമുകൾ ആണിപ്പോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനെ നമ്മൾ കൃത്യമായി വളർത്തുമ്പോഴത്തേനു അതനുസരിച്ചുള്ള പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പിന്നെ രോഗങ്ങൾ വന്നാൽ ചികിത്സിക്കാനുള്ള സംവിധാനത്തിനുള്ള എടപ്പാടുകൾ കൂടുതൽ ആയിട്ട് വേണം ഇപ്പോൾ ഏതാണ്ടൊരു പത്ത് കിലോ മീറ്റർ അകലെയൊരു ആശുപത്രി ഉണ്ടേൽ ഉണ്ടെന്നേ ആകുന്നുള്ളൂ അവിടെ പൂർണ്ണമായും സ്റ്റാഫൊന്നും ഇല്ലാത്ത കൊണ്ട് പിന്നെ കൃത്യമായിട്ടതിനുള്ള പരിപാലനം കൊടുക്കാനും രോഗ പ്രതിരോധവും വരു കിട്ടാൻ നമുക്കുള്ള സർക്കാർ ലെവൽ ചില കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്താൽ ഈ പശു വളർത്തൽ വളരെ അംഗീകാരവും വളരെ നേട്ടവും വളരെ അഭിമാനവും ഉണ്ടാകും ഈ നമുക്ക് ഉണ്ടാകുന്ന ഉത്പ്പന്നങ്ങൾ നമ്മൾ അന്യ സ്റ്റേറ്റിലോട്ട് കയറ്റിവിടാവുന്ന ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു